ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ പല രീതിയിലുള്ള കാലാവസ്ഥകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഇപ്പം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്തു വരെ നല്ല രീതിയിലുള്ള ചൂടും കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു സമയങ്ങളിലൊക്കെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ലാതെ വിയർത്ത് ഒലിച്ച് പോകുന്ന ഒരു സാഹചര്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ മഴയൊക്കെ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങി ഇപ്പം തുലാവർഷം മഴയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള മഴയും കാര്യങ്ങളും ഒക്കെ പെയ്ത് തുടങ്ങി നമുക്കൊന്നൊരു ചൂടിൽ നിന്നൊരു ചെറിയൊരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് ചെറുതായിട്ട് തണുക്കാനൊക്കെ തുടങ്ങി അങ്ങനത്തെ ഒരു ടൈപ്പ് കാലാവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇനിയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ചിലപ്പോൾ തണുപ്പ് കാലത്തിൻ്റെ ഒരു സീസൺ ആയിരിക്കും രാത്രി നല്ല രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം ഇനി അങ്ങോട്ട് ഡിസംബർ മാസവും കാര്യങ്ങളൊക്കെയായി അപ്പം മഞ്ഞ് വീഴലും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടും നല്ല രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ചൂടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പകൽ സമയത്തൊക്കെ നല്ല രീതിയിലുള്ള ചൂടും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഇപ്പോളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം താപനിലയൊക്കെ ഏകദേശം നല്ല രീതിയിൽ ചെറുതായിട്ട് കൂ കുറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല ഒരു അതായത് നമുക്ക് താമസിക്കാൻ പറ്റിയ ഒരു ടൈമും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം അങ്ങനെ വന്നിട്ടില്ല കാരണം മഴ ഒക്കെ കുറവായതു കൊണ്ട് വെള്ളപൊക്കവും കാര്യങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല